കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രധാന പങ്കുവഹിക്കുന്നത് ഓരോരോ വില്ലേജിനുള്ള ആശുപത്രികളാണ് അതായത് സർക്കാർ ആശുപത്രികളാണ് അപ്പോൾ എല്ലാ വില്ലേജിനും ഓരോ ആശുപത്രി വീതം ഉള്ളതാണ് പെട്ടന്ന് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും നേരെ അങ്ങോട്ടാണ് കൊണ്ടു പോകാറുള്ളത് മിതമായ പരിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ അല്ലെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും കൂടി ഉള്ളൊരു മെഡിക്കൽ കോളേജ് ഒറ്റൊന്നു മാത്രമേ ഉള്ളു അത് കോഴിക്കോട് ടൗണിൽ ആണ് ഉള്ളത് അവിടേയ്ക്കാണ് നമ്മൾ പോകാറുള്ളത് പിന്നെ എല്ലാ ആശുപത്രികളും ഒരുപോലെ അല്ല ഈ മെഡിക്കൽ കോളേജ് എന്നു പറയുന്നത് വലിയൊരു ആശുപത്രിയാണ് എല്ലാ മേജർ സർജറിക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രധാനമായി അങ്ങോട്ടാണ് പോകാറുള്ളത് അല്ലാതെ ചെറിയ അസുഖങ്ങളായ പനി ജലദോഷം തുടങ്ങിയവ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വില്ലേജിൻ്റെ ആശുപത്രിയിൽ പോയിക്കാണിക്കാറുള്ളു ആ ആശുപത്രി വളരെ ചിലവ് കുറഞ്ഞതും ഉപകാരപ്രദവുമാണ് സർക്കാർ തരുന്ന ഫ്രീ മരുന്നുകളും ഫ്രീ ചികിത്സകളൊക്കെ നമുക്ക് അവിടെനിന്ന് കിട്ടാറുണ്ട് പതിനെട്ട് വയസ്സിന് താഴത്തുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ചികിത്സയും സംരക്ഷണങ്ങളും കാര്യങ്ങളും മരുന്നുകളും ഒക്കെ ഉണ്ട് അതിന് നമ്മൾ മുകളിലോട്ട് ഉള്ളവരായാലും അഞ്ച് രൂപയുടെ ഒരു ഒ പി ടിക്കറ്റ് എടുത്താൽ നമ്മക്ക് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒക്കെയാണ് കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇതു സമൂഹത്തിൻ്റെ ആവിശ്യങ്ങൾ എങ്ങനെ നിറവേറ്റും എന്ന് ചോദിച്ചാൽ രോഗം രോഗങ്ങൾ ഇല്ലാത്തൊരു നാടിനെ വാർത്തെടുക്കാൻ ഇത് വളരെ അധികം പങ്കു നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും രോഗങ്ങളെ അധികം മറികടക്കാറുള്ളത് സർക്കാർ ആശുപത്രികളാണ് ഇതിന് കൂടുതലായും പങ്കുവഹിക്കാറുള്ളത് ഇവിടേ എൻ്റെ പരിസരങ്ങളിൽ ഉള്ള സർക്കാർ ആശുപത്രികൾ സർക്കാർ ആശുപത്രി നരിക്കുനി സർക്കാർ ആശുപത്രി ഒരു കൊടുവള്ളി ഒന്ന് ഉണ്ട് ഒന്ന് വട്ടോളിയുണ്ട് എൻ്റെ പരിധിയിലുള്ള ഇവിടെ ഉള്ള എല്ലാവരും അവിടെ ഒക്കെ തന്നെയാണ് കാണിക്കാൻ പോകാറുള്ളത്